ഞങ്ങളുടെ ഗ്രാമത്തിൽ പലചരക്ക് കടകളെ പറ്റി പറയുവാണെങ്കിൽ നിരവധി കടകൾ ഞങ്ങളുടെ നാട്ടിലുണ്ട് പല സ്ഥലങ്ങളിലും ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നിരവധിയായ കടകൾ നിരവധിയായ കടകൾ നിരവധിയായ കടകളുണ്ട് ഗ്രാമത്തിൽ പലചരക്ക് കടകളെക്കാളും കൂടുതലായിട്ട് ഇപ്പം ബേക്കറി കടകൾ പിന്നെ നമുക്ക് അവിടെ വെള്ളം കിട്ടുന്ന കട ബേക്കറി സ്നാക്ക്സ് ഫുഡ്ഡ് അങ്ങനത്തെ അങ്ങനുള്ള നിരവധി കടകളാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമുണ്ട് അവിടെ അവിടെ അതും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി ബേക്കറി കടകളൊക്കെയുണ്ട് അവിടെ കുലുക്കി സർബത്ത് പിന്നെ മോരും വെള്ളം അച്ചാറ് സോഡ തണ്ണിമത്തൻ മാങ്ങ പൈനാപ്പിള് ഇവയെല്ലാം കട്ട് ചെയ്ത് പഞ്ചാരയെക്കെയിട്ട് മുളകൊക്കെയിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കടകളിൽ പ്രധാനമായിട്ടും ആൾക്കാർ മേടിക്കുന്ന സാധനം ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഈ പലചരക്ക് കടകളിൽ സാധാരണ മേടിക്കാറുണ്ട് അവിടെ പോയി വില പേശാറൊന്നുമില്ല സാധനങ്ങളുടെ വില പല കടകളിൽ ചോദിച്ച് വില കുറവുള്ള കടകളിൽ പോയി സാധനങ്ങൾ മേടിക്കാറുണ്ട് കൂടാതെ വൻ തോതിൽ സാധനങ്ങൾ മേടിക്കാനായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് ടൗൺ എരിയാസിൽ പോയിട്ട് അവിടെ നിന്നാണ് വൻ തോതിൽ സാധനങ്ങൾ മേടിച്ചോണ്ട് വരുന്നത് പിന്നെ ചെറിയ ചെറിയ ലൂസായിട്ടുള്ള വേണ്ട സാധനങ്ങൾ വേണ്ട സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടെ ഇവിടെയുള്ള പലചരക്ക് കടകളിൽ നിന്ന് മേടിക്കാറുള്ളത് പ്രധാനമായിട്ടും എല്ലാ ദിവസവും പാൽ പാൽ അങ്ങനുള്ള സാധനങ്ങളാണ് പ്രധാനമായിട്ടും ഞങ്ങൾ മേടിക്കുന്നത് പാൽ മുതലായ സാധനങ്ങൾ മേടിക്കാനായി ട്ടൗണിൽ പോകാൻ സാധിക്കുകയില്ല ആയതിനാൽ തന്നെ നമ്മൾ ഇപ്പം അന്നന്ന് വേണ്ടുന്ന പാൽ അന്നന്ന് വൈകിട്ട് പോയാണ് മേടിക്കുന്നത് അവിടെ പോയി സാധനങ്ങൾക്ക് ഒരിക്കലും വില പേശാറില്ല പല കടകളിൽ വിലകൾ ചോദിച്ച് അവിടുത്തെ വിലകൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ സാധനം മേടിക്കുവാണ് ചെയ്യാറുള്ളത് ഇത് കൂടാതെ നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും അടുപ്പിച്ച് അടുപ്പിച്ച് കടകളുണ്ടായിട്ട് പോലും അവയെല്ലാം തന്നെ അവയെല്ലാം തന്നെ നമുക്ക് പ്രധാനമായി അവയെല്ലാം തന്നെ ലാഭത്തിൽ പോകുന്നുണ്ട് പണത്തിൻ്റെ ഇതിൽ വലിയ കുഴപ്പമില്ലാത്തതു കൊണ്ടും നാട്ടുകാരുടെ സഹകരണം കൊണ്ടുമാണ് ഇത് സാധ്യമാകുന്നത്